എന്റെ പ്രദേശമായ മലപ്പുറം ജില്ലയിലെ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്ററിൻറെ ആറാമത്തെ കേന്ദ്രം ഹോക്കി സ്റ്റേ ഹോക്കി സ്റ്റേഡിയത്തിൽ ആയിട്ട് ഉൽഘാടനം ചെയ്തിട്ടുണ്ടാരുന്നു പൊതു ജനങ്ങൾക്കും കായിക താരങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സംസ്ഥാന കായിക വകുപ്പാണത് ഉൽഘാടനം ചെയ്തത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റിലായിട്ട് അൻപത്തിനാല് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ചതാണ് ആധുനിക സൗകര്യങ്ങളൊക്കെയോട് കൂടിയിട്ടുള്ളൊരു ഫിറ്റ്നസ് സെന്റർ ആണ് അത് അത് ശീതീകരണ സംവിധാനം ഉൾപ്പെടെ എല്ലാ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആധുനിക ഉപകരണങ്ങളും അത്യാധുനിക കാർഡിയോ ഉപകരണങ്ങൾ ഇൻ ലോഡഡ് പ്ലേറ്റ് ലോഡഡ് ഉപകരണങ്ങളൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്ത് അഞ്ച് കേന്ദ്രങ്ങളിലാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലും ജിമ്മി ജോർജ്ജ് ഇൻഡോർ സ്റ്റേഡിയത്തിലും വട്ടിയൂർക്കാവ് ഷൂട്ടിങ്ങ് റേഞ്ചിലും അപ്പോൾ അവിടെ വി കെ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലും ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് രണ്ടെണ്ണം നിർമ്മാണ ഘട്ടത്തിലാണ് ഒമ്പത് സെന്ററുകൾ കൂടി ആരംഭിക്കാൻ ഉള്ള പരിപാടി ഉണ്ട് കായിക രംഗത്ത് അടിസ്ഥാന സൗകര്യം വിക വിക അടിസ്ഥാന സൗകര്യ വികസനം ആ ഇതൊക്കെ നടത്തി വകുപ്പ് നടത്തി വരുന്ന വിവിധ പരിശീലന പദ്ധതികൾക്കും വളരെ സഹായകരമാവുന്ന ഫിറ്റ്നസ് സെന്ററുകളാണ് ഇതെല്ലാം